ആദ്യം മൊബൈൽ ആപ്പിലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഓഡറ് ചെയ്ത ജ വലിയ ജാക്കറ്റ് വലിപ്പമുള്ള ജാക്കറ്റ് ക്യാൻസല് ചെയ്യുക ഓഡർ ക്യാൻസല് ചെയ്ത് അത് റിട്ടേൺ പോവും അപ്പോൾത്തന്നെ നമുക്ക് ആ അതെ ഓഡർ തന്നെ അതിന്റെ വലിപ്പം കൂടിയ സൈസ് ഓഡർ ചെയ്ത് ഇച്ചിരി ഓഡർ ചെയ്യുക അപ്പോൾ നമ്മൾ ഓഡർ ചെയ്ത ഓഡർ ക്യാൻസല് ചെയ്ത ഉല്പന്നം റിട്ടേണാവുകയും പുതിയ പുതിയത് നമ്മളോർഡറ് ചെയ്യുകയും ചെയ്യുന്നു